ഞാൻ പഠിച്ചുകൊണ്ടിരുന്നകാലത്ത് ഞാനും എൻ്റെയൊരു മൂന്നുനാല് കൂട്ടുകാരികളും കൂടെ ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ വളരെ അഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊച്ചടുക്കള എന്നു പറഞ്ഞൊരു സുഗീലെ ഒരു ഹോട്ടലിനു ഞങ്ങൾ ഓർഡർ ചെയ്തു ഞങ്ങളൊരു നാലുപേരോളം ഉണ്ടായിരുന്നു ഞങ്ങളത് ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അത് കൃത്യസമയത്തുതന്നെ ഞങ്ങൾക്കത് ഒരു ഡെലിവറി ബോയി ഞങ്ങൾക്കത് കൊണ്ടുവന്നുതന്നു അത് കറക്റ്റ് സമയത്ത് ഇത്രയും ആദ്യമായിട്ട് ഞങ്ങൾക്കത് കിട്ടുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് വൈകിയേ കിട്ടാറ് പക്ഷെ നല്ല കറക്റ്റ് നല്ല ഒരു ഇരുപത് മിനിറ്റോളം എടുത്തിട്ടുണ്ടാവും അത്രയും എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അത് എത്തിച്ചു തന്നു ഞങ്ങൾ പേ ചെയ്തു അത് നല്ല രുചി ഉണ്ടായിരുന്നു നല്ല ഒരു അടിപൊളി ഫുഡ് ആയിരുന്നു ഞങ്ങൾക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പിന്നെ എന്ത് ഉണ്ടെങ്കിലും അതിൽനിന്ന്തന്നെ ഓർഡർ ചെയ്യത്തുള്ളൂ അവർ ആണെങ്കിൽ കൃത്യസമയത്തുതന്നെ ഞങ്ങൾക്കത് എത്തിച്ചിരുന്നു അത് ഞങ്ങൾ കുറേ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരുകൾ ഫുഡ് ഓർഡർ ചെയ്ത് കുറേ നേരം നിന്ന് വിശന്ന് അവശത ആയി ഇരിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഞങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ സംഭവം എത്തിച്ച് തരികയും ക്യാഷ് ഞങ്ങൾ പേ ചെയ്യുകയും ചെയ്തു ഞങ്ങൾ എവിടെപ്പോയാലും എന്ത് ഇപ്പം ഹോസ്റ്റലിലേക്ക് വന്നാലും കൊച്ചടുക്കളയിലെ ബിരിയാണി തന്നെയാണ് ഞങ്ങൾ ഇപ്പഴും ഓർഡർ ചെയ്യാറ് അത് നല്ല അവർ പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്തുതരുന്നത് ഒരു ഒരു വാഴയിലയുടെ കൂടെ ഒരു റൈസും അത്യാവശ്യം ഒരാൾക്ക് തിന്നാനുള്ളത് ഉണ്ടാകും റൈസും ചിക്കനും സർലാസും അച്ചാറും അത് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് അതിനു മേളിലൊരു ചാർട്ട് പേപ്പറും വച്ച് പൊതിഞ്ഞ് പിന്നെ മറ്റേ ഗോൾഡൻ കവറിൽ പൊതിഞ്ഞിട്ടാണ് തന്നത് അവരുടെ പാക്കിങ് സ്റ്റയിലും എല്ലാം നല്ല അടിപൊളിയാണ് ഞങ്ങൾ കുറേ കൂട്ടുകാരികൾക്ക് അത് സജെസ്റ്റും ചെയ്തു നല്ല അടിപൊളി ഫുഡ് ആണെന്ന് പറഞ്ഞ് അത് അവർ കൃത്യസമയത്ത് എത്തിച്ച് തരും എന്ന് ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപെട്ടിരുന്നു ഞങ്ങളൊരു മൂന്നാലഞ്ചു തവണത്തോളം അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സംഭവമായിരുന്നു ഞാൻ അത്രയും ടേസ്റ്റിൽ ബിരിയാണി നാട്ടിൽ ഇത്ര ഇതങ്ങനെ കഴിച്ചിട്ടില്ല നല്ല അടിപൊളി അടിപൊളി ബിരിയാണിയായിരുന്നു